എൻ്റെ ജീവിതത്തിൽ സാങ്കേതികവിദ്യയുടെ പുരോഗതി എന്നുപറഞ്ഞാൽ ഒരുപാട് മുൻപന്തിയിൽ തന്നെയാണ് കാര്യം ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടുതന്നെ ആ എനിക്കിപ്പം ഒരു പെട്ടെന്നൊരു ഒരു ഫോട്ടോ എടുത്ത് അത് വേറൊരാളെ കാണിക്കണമെങ്കിൽപ്പോലും എനിക്കത് അപ്ലോഡ് ചെയ്യാനും അത് എനിക്ക് ഫോൺ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ തന്നെ നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് നിമിഷനേരം കൊണ്ട് നിമിഷനേരങ്ങൾ കൊണ്ടുതന്നെ അത് മറ്റുള്ളവരെ കാണിച്ചുകൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ നമക്കെന്തെങ്കിലുമൊരു ആപ്ലിക്കേഷൻ അതായത് നമുക്കെന്തെങ്കിലുമൊരു കാര്യത്തിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിമിഷനേരം കൊണ്ട് സാധിക്കും പണ്ടൊക്കെ മറ്റേ ലെറ്ററിലെഴുതി പോസ്റ്റ് ചെയ്ത് അതവിടെ കിട്ടിവരുമ്പോഴത്തേനും ഒരുപാട് താമസം നേരിടുന്നുണ്ട് പക്ഷേ ഇന്ന് ആ അതിൻ്റെ യാതൊരാവശ്യവുമില്ല എല്ലാരുടേയും വിരൽത്തുമ്പിൽ തന്നെയാണ് കാര്യങ്ങൾ